കേരളത്തിലെ ബാങ്കിങ് മേഖലയിലും അതുപോലെ ഇൻഷുറൻസ് മേഖലയിലൊക്കെ പ്രതിഭകളെ അല്ലെങ്കിൽ കഴിവുകളെ ആകർഷിക്കുന്നത് പല രീതിയിലാണ് ഒന്നുകിൽ അഡ്വർട്ടൈസ്മെന്റ് ഇൻ്റർവ്യൂ എക്സാംസ് എങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ നിയമനം നൽകുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇപ്പം ബാങ്കിങ് മേഖലയിലായിക്കോട്ടെ ഇൻഷുറൻസ് മേഖലയിലായിക്കോട്ടെ ജോലി സാധ്യതകൾ കൂടുതലാണ് അപ്പം പഠിച്ചെറങ്ങുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ടും അക്കൗണ്ട് സെക്ഷനിൽ പഠിച്ചവരാണ് ഇത്തരം മേഖലകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എം കോമും ബി കോമും പഠിച്ച ഒത്തിരി ആൾക്കാരുണ്ട് അവരിൽ ചിലർ പി എസ് സി എഴുതിയിട്ട് ബാങ്കിങിലേക്ക് കയറുന്നുണ്ട് അതുപോലെ ബാങ്കിങ് കോച്ചിങ്ങിലൂടെ ബാങ്കു കോച്ചിങ് ഒരുപാട് കാലം ബാങ്ക് കോച്ചിങ് ചെയ്ത് ട്രെയിനിങ് നൽകി പിന്നീട് എക്സാമിലോ എക്സാമിലൂടെയൊക്കെ ഒരുപാട് ബാങ്കിങ് മേഖലയിലൊക്കെ ആൾക്കാരെ നിയമിക്കുന്നുണ്ട് അപ്പം അവരോട് അത്രയ്ക്കും ക്ലാരിറ്റിയും ക്ലിയറും ആയ ഒരാളെ മാത്രമേ ബാങ്കിങ്ങിലും ഒക്കെ നിയമനം നൽകുകയുള്ളൂ അപ്പം അവർക്ക് അവരുടേതായ ഈ മാത്സിലൊക്കെ നല്ല രീതിയിൽ മു മു മുൻകൈ അല്ലെങ്കിൽ നല്ല രീതിയിൽ മാത്സ് ഒക്കെ അറിയുന്ന കാൽകുലേറ്റ് ഇപ്പ നമക്ക് മനക്കടായിട്ട് അല്ലെങ്കിൽ കാൽകുലേറ്റൊന്നും കാൽകുലേറ്ററൊന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ മനക്കണക്ക് കൂട്ടുന്ന ആൾക്കാർ അവരൊക്കെ നല്ല രീതിയിൽ നമുക്ക് എക്സാമിലൂടെയൊക്കെ പി എസ് സി എക്സാമിലൂടെയൊക്കെ തിരിച്ചറിയാനായിട്ട് കഴിയും ഇങ്ങനെ പി എസ് സി എക്സാമിലൂടെയും ഗവൺമെന്റ് ജോലി ബാങ്ക് ബാങ്കിങ്ങിലൂടെ ജെ ഗവൺമെന്റ് ജോലിയും നൽകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ ആൾക്കാരെ നിയമിക്കുന്നതു കൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിലുള്ള ദൈനംദിന നഷ്ട്ട സാധ്യതകളൊക്കെ നമുക്ക് കുറക്കാനായിട്ടൊക്കെ കഴിയും അവരുടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരും നല്ല ക്ലാരിറ്റിം ക്ലിയറുമായ ആൾക്കാരൊക്കെ എടുക്കുന്നതു കൊണ്ട് തന്നെ അവർ അവരുടെ ജോലിയിൽ നൂറ് ശതമാനം കൃത്യനിഷ്ഠത അല്ലെങ്കിൽ ആത്മാർത്ഥത പുലർത്തുന്ന ആൾക്കാർ തന്നെയാണ്